ഒരു കർഷകൻ കൃഷി ചെയ്ത് വിളവുകളുണ്ടാക്കിയാൽ അതു വിപണിയിൽ കൊണ്ടു വിറ്റഴിക്കുമ്പോൾ ആ വ്യക്തിക്ക് അധികം വിലയൊന്നും കിട്ടുന്നില്ല അതു കാലങ്ങളായി കർഷകരുടെ ഒരു പരാതിയാണ് അതേ സമയം ആ സാധനങ്ങൾ വാങ്ങിച്ച് മറിച്ചു വിൽക്കുന്ന കച്ചവടക്കാർക്ക് ലാഭം കിട്ടുന്നുണ്ട് താനും പക്ഷേ ഈ കർഷകന് വില കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്നു ചോദിച്ചാൽ അറിയത്തില്ല കർഷകർ അത് ഇതുവരെയും അത് പരിഹരിക്കുന്നില്ല ഇപ്പം ഇപ്പം ഓരോ വർഷവും ഓരോ സാധനത്തിന് ചിലപ്പോൾ വില കൂടുന്നു ഈ വർഷം ഏലത്തിനും കാപ്പിക്കും അങ്ങനെയൊക്കെ ഓരോ സാധനത്തിനും വില വില കൂടുന്നുണ്ട് ഇപ്പം എല്ലാ വർഷവും പിന്നെ എല്ലാ സാധനത്തിനും ഒരു പോലെ വില കൂടുന്നില്ലയെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏലത്തിനും മുളകിനും കാപ്പിക്കുരുവിനുമൊക്കെ വില കൂടുന്നുണ്ട് കർഷകരുടെ പരാതി ഏതു കൊണ്ടാണോ എന്തു കൊണ്ടാണന്നറിയത്തില്ല എന്നതാണെന്നു പറഞ്ഞാലും ഈ വർഷം ഒരു മാതിരി സാധനങ്ങൾക്കെല്ലാം വിലയുണ്ട് തേങ്ങക്കും വില കൂടി വെളിച്ചെണ്ണക്ക് അങ്ങനെ എല്ലാറ്റിനും വിലയുണ്ടപ്പം തേങ്ങ തേങ്ങ തേങ്ങയുള്ള കർഷകർക്ക് മുടങ്ങാതെ വെട്ടി ആട്ടിച്ച് ആട്ടിച്ച വെളിച്ചെണ്ണ കൊടുത്താലും എല്ലാം വിലയുണ്ട് ഈ വർഷം എല്ലാറ്റിനും ഒരുമാതിരി തന്നെ വിലയുണ്ട് പിന്നെ ഉണക്ക് ബാധിച്ച് ഒരുപാട് കർഷക ഒരുപാട് കർഷകരുടെ വിളകളെല്ലാം കരിഞ്ഞു പോയി പിന്നെ ജലസേചനം നന്നായി നടത്താൻ പറ്റിയില്ലെങ്കിൽ വിളകളെല്ലാം കരിഞ്ഞു പോകുന്നു ഇപ്പോളാണെങ്കിൽ നല്ല ചൂടനുഭവപ്പെടുന്ന സമയമാണ് അപ്പം ഈ കർഷകനിതു പോലെ കഷ്ടപ്പെട്ട് വിളകൾ ഉണ്ടാക്കി അത് വിപണിയിൽ കൊണ്ട് വി വിൽക്കുമ്പോൾ അതിന് ഒരു സാമാന്യം ഒരു ശരാശരിയൊരു നഷ്ടം വരാത്ത തരത്തിലുള്ള വില എല്ലാ വിളകൾക്കും കിട്ടുകയാണെങ്കിൽ നല്ലതാണ് അത് അങ്ങനെ കർഷകൻ കർഷകനെ ഒരു നല്ല വെ വില വില കിട്ടുകയാണെങ്കിൽ നന്നായി മുന്നോട്ടു പോകുവാൻ കഴിയും ഇപ്പം വളത്തിനും എല്ലാറ്റിനും എല്ലാ സാധനങ്ങൾക്കും വിലയാണ് അപ്പോൾ ഒരു ഇപ്പോൾ ഒരു ഏലം കർഷകനെ തന്നെ വളവിനും വള വളവും മരുന്നുകളുമെല്ലാം വാങ്ങിക്കുമ്പോൾ അതിനൊരു നല്ല വിലയാകുന്നുണ്ട് അപ്പോൾ അത് കൂലിക്കാരെക്കൊണ്ട് പണിയിപ്പിച്ചൊക്കെ വിളവെടുത്ത കൃഷി വിളവെടുത്തതു കൊണ്ട് വിൽക്കുമ്പോൾ ഒരു സാമാന്യം നല്ല വില കിട്ടിയില്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് എന്തു കൊണ്ടോ ഈ വർഷം കഴിഞ്ഞ വർഷമൊക്കെ ഉണക്ക് കണ്ടമാനം ബാധിച്ചത് കൊണ്ടായിരിക്കും ഈ വർഷ ഏലത്തിനൊക്കെ ഒരുമാതിരി നല്ല ഒരുമാതിരി നല്ല വിലയുണ്ട് അപ്പോൾ ഈ ഇതേ അവസ്ഥയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ കർഷകനെ ഒത്തിരി രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം